ഹലോ ഹലോ മിസ്സെ എൻ്റെ പേര് ശിവാനി എന്നാണെ ഞാൻ ഇപ്പോൾ നമ്മുടെ സബ് ജില്ല കായികമേളയിൽ റെയ്സിന് റണ്ണിങ് റേയ്സിന് ഞാൻ കയറിയിട്ടുണ്ട് ഇരുന്നൂറ് മീറ്ററ് റണ്ണിങ് റേയ്സിന് ഇരുന്നൂറ് മീറ്ററ് മാത്രം കയറിയിട്ടുള്ളൂ അപ്പം ഇതിനുമുന്നെ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുനൂറ് മീറ്ററ് പിന്നെ നൂറും ഇരുന്നൂറും നാനൂറും ഓടുമായിരുന്നു ഇപ്പോൾ ഇരുന്നൂറെ കയറിയിട്ടുള്ളൂ ഇവിടെ സബ് ജില്ലാ കലോത്സവത്തിൽ അല്ല കായികമേളയിൽ അപ്പം എനിക്ക് അടുത്തയാഴ്ച്ചയാണ് കോമ്പിറ്റീഷൻ വന്നേക്കുന്നത് അപ്പോൾ ഞാൻ എന്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നിർത്തി കുറച്ചുനാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ കയറിയേക്കുന്നെ ഹെൽത്ത് ഇഷ്യൂ കാരണം ഞാൻ നിർത്തിയായിരുന്നു ആ

ആ ഓക്കെ ഓക്കെ

ആ ഞാൻ നോൺ വെജ് ആണ് ആ എല്ലാം കഴിക്കും എല്ലാം കഴിക്കും ആ

ആണ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മിസ്സെ ഓക്കെ ആറുമണിക്ക് ആയിട്ടാണ് മിസ്സെ അപ്പോൾ ഞാൻ എങ്ങോട്ടാ വരേണ്ടത് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലോട്ടോ അപ്പോൾ മിസ്സെ ഞാനൊരു കാര്യം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ഇപ്പോൾ എൻ്റെ ബോഡി പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആകുന്ന ബോഡിയാ പെട്ടെന്നാണ് അപ്പോൾ ഞാൻ മേബി ഫെയിൻറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും മുൻകരുതലുകൾ പോലെ എന്തെങ്കിലും ഉണ്ടാകുമോ

ആ ആ ഓക്കെ മിസ്സെ ഓക്കെ താങ്ക് യു താങ്ക് യു ശരി